ഹലോ ബേങ്കല്ലേ ആ എനിക്കൊരു ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നേ കാർഷിക ലോണാണ് കാർഷിക ലോണാണ് കാർഷിക ലോണാണ് എനിക്കൊരു നാല് ലക്ഷം രൂപ ഉം ഉം

ഓ ശരി മൂന്നു ലക്ഷം വരെയുള്ളൂ നാല് ശതമാനത്തിൻറ്റേത് അല്ലേ നമുക്കൊരു ഒന്നര ഏക്കർ

റബ്ബറുണ്ട് മ തെങ്ങ് മറ്റു കാർഷിക വിളകളെല്ലാമുണ്ട് കപ്പ ചേന ചേമ്പ് അതെല്ലാമുണ്ട്

ആ മ് മ് ആ ആ ഹാ ഹാ ആ ഹാ ആ ആ ആ ഓ അങ്ങനെയും ചെയ്യാമല്ലേ ഉം ഉം അപ്പം ഓ ആ ആ

ആ ആ ആ ഓ അതു ചിന്തിച്ചില്ല അതു ഞാൻ ചിന്തിച്ചില്ല അതായിരിക്കും കൂടുതലെളുപ്പമല്ലേ ഓഹൊ ഓ ശരി ശരി ആ ആ ഓഹൊ ആഹ ആ ഹാ ഹാ ഓ ഹോ ഹോ ഉണ്ടുണ്ട് ഉണ്ട്